ഹാലോ ക്യാബ് സർവീസല്ലേ ഞാൻ ഒരു ടാക്സി ബുക്ക്യ്യാനായിട്ടായിര്ന്നെ എൻ്റെ പേര് ഡെൽന എന്നാണ് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ പാരൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ക്യാബ് അവര് ഉള്ളത് തൃശൂർ ജില്ലയിലാണെ ഞാന് ഇവിടെ കോട്ടയത്താണ് അപ്പോള് എനിക്ക് അവരെ തൃശൂരുനിന്ന് കോട്ടയത്തേക്ക് അവർക്ക് വരാൻ വേണ്ടിയിട്ടാണെ അപ്പോള് അടുത്ത വ്യാഴാഴ്ചത്തേക്കാണ് ടാക്സി വേണ്ടത് അവര് രാവിലെ അവിടെ റെഡിയായിട്ട് നില്ക്കും പാരൻറ്റ്സ് ഉണ്ട് പിന്ന കുറച്ച് ലഗേജൊക്കെ ഉണ്ടേ അപ്പോള് ഇച്ചി പ്രായം ഉള്ളതാണ് പാരൻറ്റ്സൊക്കെ അപ്പോള് സൂക്ഷിച്ചും കണ്ടുമൊക്ക കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരെയേ തരാവൊള്ളേ അപ്പോള് തൃശൂരുനിന്നു നേരെ കോട്ടയം വന്നാല് മതി എറണാകുളം കൂടി വന്നാല് മതി അതുപോലെ യാത്ര ചെയ്യാനായിട്ട് അപ്പനും അമ്മയും മാത്രമേ ഉള്ളു ഇവര് രണ്ട് പേരും പിന്ന ഞാൻ പറഞ്ഞപോല ലഗേജൂം മാത്രമേ ഉള്ളു പിന്നെ എത്രയാവും അതിൻ്റെ റേയ്റ്റൊന്നെനിക്കൊന്ന് അറിയണമായിരുന്നെ അതുപോലെ ഞാൻ നമ്പറൊക്കെ തരാം അന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊക്കെയാവുമ്പോഴത്തേക്കും തൃശൂരെത്തുന്ന പോലെ തൃശ്ശൂരുനിന്നു പുറപ്പെടുന്ന പോലെയുള്ള ഒരു സംവിധാനം ചെയ്യണം ഞാന് അവരെ കോൺറ്റാക്റ്റെയ്യാനായിട്ടുള്ള നമ്പറും എന്നെ കോൺറ്റാക്റ്റെയ്യാനുള്ള നമ്പറും ഞാൻ തരാം കോട്ടയത്ത് കോട്ടയത്ത് സംക്രാന്തിയിലാണ് എൻ്റെ വീട് അങ്ങോട്ടാണ് എത്തിക്കേണ്ടത് അപ്പോള് ഞാനെൻ്റെ അഡ്രസ് അയച്ചുതരാം അതുപോലെ തൃശ്ശൂരുനിന്ന് അവരെ പിക്കെയ്യേണ്ട അഡ്രസ്സും ഞാൻ അയച്ചുതരാം ഓക്കേ